ആ ട്രക്കിങ് സ്ഥലങ്ങളിലൊക്കെ നമ്മള് ചെല്ലുമ്പോൾ പല സ്ഥലങ്ങളിലും മാലിന്യക്കൂമ്പാരങ്ങളൊക്കെ കാണാറുണ്ട് അവരുപയോഗിച്ച ഭക്ഷണസാധനങ്ങളുടെ വേയ്സ്റ്റുകളും പിന്നെ പല സ്ഥലങ്ങളിലും മദ്യക്കുപ്പികളും ചില്ല് മദ്യക്കുപ്പികളുടെ ചില്ല് പൊട്ടിച്ചിടുന്നതൊക്കെയായിട്ട് നമുക്ക് കാണാറുണ്ട് ട്രക്കിങ്ങിന് പോകുമ്പോള് അല്ലെങ്കിൽത്തന്നെ നമ്മളൊരു കൾച്ചറിൻ്റെ ഭാഗമാക്കി വൃത്തിയാക്കി മാറ്റുകയെന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യാനുള്ളത് അതുകൊണ്ട് തന്നെ നമ്മള് ഇപ്പോള് ചെറുപ്രായങ്ങളിൽത്തന്നെ കുട്ടികളിൽ വൃത്തിയുടെ ശീലങ്ങളുണ്ടാക്കുകയും വളരെ വൃത്തിയായിത്തന്നെ നമ്മുടെ പരിസരവും പ്രകൃതിയും സൂക്ഷിക്കാനുള്ളൊരു ബോധം ബോധവൽക്കരണം കുട്ടികളിൽ കൊടുക്കുകയും ചെയ്തുകഴിഞ്ഞാല് നമുക്ക് അങ്ങനെയൊരു സംസ്കാരം വളർത്തിയെടുക്കുകയും ചപ്പുചവറുകളും വേസ്റ്റുകളുമൊക്കെ വലിച്ചെറിയുന്നതിന് പകരം അത് വൃത്തിയായി സംസ്കരിക്കാനുള്ള അല്ലെങ്കില് സുരക്ഷിതമായ രീതിയില് ഉപേക്ഷിക്കാനുള്ള ഒരു കൾച്ചര് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാല് പരിസരം വൃത്തിയാക്കി സൂക്ഷിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്